തിരുവനന്തപുരം ജില്ലയിൽ പ്രധാന ഉല്ലാസ പ്രവർത്തനങ്ങളൊരുപാടുണ്ട് എന്നാൽ നമ്മൾ പ്രദേശത്ത് പിന്നെ തീയേറ്ററുകളുണ്ട് പാർക്കുണ്ട് പിന്നെ കായിക മത്സരങ്ങൾക്കുള്ള സൗകര്യങ്ങളുണ്ട് നന്ദിയോട് സ്റ്റേഡിയമുണ്ട് പിന്നെ അതുപോലെ തീയേറ്റർ നമുക്ക് നേരത്തെ ഇവിടെ അടുത്തുണ്ടായിരുന്നു അവിടെ പിന്നെ ടീ വിയിൽ കൂടെ ഇതെല്ലാം വന്നതിനു ശേഷം തീയേറ്ററുകളെല്ലാം അടച്ചുപൂട്ടി ഒരു പാലോട് ബ്ലൂ മൗണ്ട് ഉണ്ടായിരുന്നു പാലോട് സെൻ്ററുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഇവിടുന്നോരു മുക്കാൽമണിക്കൂർ പോയാൽ തിയേറ്ററ് സൂര്യ തിയേറ്ററ് പിന്നെ ഭുവനേശ്വരി ഇങ്ങനെ തീയേറ്ററുകളുണ്ട് അഞ്ചാറു തിയേറ്റർ അവിടെയുണ്ട് പിന്നെ അതിന് കുറച്ചപ്പുറത്തോട്ടാണെങ്കിൽ കൂടുതൽ തിയേറ്ററുകൾ എല്ലാം ഉണ്ട് പിന്നെ പ്രോട്ടാണിക്കൽ പൂന്തോട്ടത്തിനു പ്രോട്ടാണിക്കൽ ഗാർഡനുണ്ട് അവിടെ ചെറിയ പൈസേയുള്ളു ചെറിയ പൈസക്ക് കാണാന്നുള്ളതേയുള്ളു പിന്നെ സിനിമ തീയേറ്ററുകളിൽ മൈതാനങ്ങളും പാർക്കുകളും ഉണ്ട് വെമ്പായത്ത് ഹാപ്പി ലാൻഡുണ്ട് അവിടെ പൈസയാണെങ്കിൽ ഞങ്ങൾ കൊച്ചുങ്ങൾക്കു സ്കൂൾ ഒക്കെ അവധി വരണ സമയത്തൊക്കെ നമ്മൾ പോവാറുണ്ട് അത് പൈസ കുറച്ച് കൂടുതലാണെങ്കിലും നമ്മൾ പോയതെല്ലാം പോയി കാണാറുണ്ട് തിയേറ്ററിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂന്നു മാസോ രണ്ടു മാസോ കൂടുമ്പോൾ നമ്മൾ തിയേറ്ററുകളിലും പോയി കാണാറുണ്ട് പിന്നെ സാംസ്കാരിക സമ്മേളനം നടത്തത്തക്ക ഗ്രൗണ്ടുകൾ നന്ദിയോടുണ്ട് പിന്നെ പാർക്ക് ഈ ഹാപ്പി ലാൻഡ് പാർക്ക് അല്ലാതെ കൊച്ചുങ്ങൾക്ക് കാണത്തക്ക ചെറിയ ചെറിയ ഇതെല്ലാം ഇവിടെ നന്ദിയോടിന് അടുത്തുണ്ട് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളുമുണ്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും പോവാറുമുണ്ട് നമ്മളും അതിലൊക്കെ പോവാറുണ്ട് പരിപാടികളെല്ലാം കാണാറുണ്ട് പിന്നെ ഉത്സവ സമയം വരുമ്പം മൈതാനങ്ങൾ പരിപാടികൾ നടത്താറുണ്ട് അമ്പലങ്ങളിൽ ഇതുവെച്ച് എല്ലായിടങ്ങളിലും പരിപാടികൾ നടക്കാറുണ്ട് ഇതെല്ലാം നടക്ക് നടത്തും നടത്തുന്ന സ്ഥലം തന്നെയാണ് ഇതെല്ലാം സൗജന്യമാണ് പ്രോട്ടാണിക്കൽ ഗാർഡൻ മാത്രം കുറച്ച് പൈസ കൊടുത്താൽ മാത്രം മതി ബാക്കിയൊക്കെ എല്ലാം സൗജന്യമായിട്ടു തന്നെ തീയേറ്ററിലും പൈസ കൊടുക്കണം ബാക്കിയെല്ലാം നമ്മൾ സൗജന്യമായിട്ടു തന്നെയാണ് എല്ലാം കാണുന്നത്